എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒര് ഗെയിമാണ് വടംവലി നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ഗെയിം തന്നെയാണ് വടംവലി വിശേഷ അവസരങ്ങളിൽ പ്രധാനമായും തിരുവോണ നാളുകളാണ് നമ്മൾ ഈ കളികൾ കളിക്കുന്നത് വടംവലി എന്നാൽ ഒരു വലിയ വടം അതായത് പിന്നെ പൊട്ടാത്ത വലിയ നല്ല കനവുള്ള വടം ഉപയോഗിച്ചിട്ട് രണ്ട് വശത്ത് നിന്നും ആളുകൾ ഓരോ ടീമായിട്ട് നിന്ന് അങ്ങോട്ടു ഇങ്ങോട്ടും വലിക്കുന്നതാണ് കളി അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒര് റിബൺ കെട്ടിയിരിക്കും റെഡ് റിബൺ കെട്ടിയിരിക്കും അത് അവിടെ ഒരു പോയൻ്റാരിക്കും ആ വാ പിന്നെ ചുവന്ന റിബൺ കെട്ടിയിരിക്കുന്നത് ഏത് ഗ്രൂപ്പിൻ്റെ സ്ഥലത്തേക്കാണോ ആ റെഡ് ഗ്രൂപ്പ് റെഡ്ഡ് റിബൺ വരുന്നത് ആ ടീമാണ് ജയിക്കുന്നത് ഇതിന് പറയുന്നത് ഈ കളിക്ക് പറയുന്നത് ജയിക്കുമ്പോൾ പുറകോട്ട് പോകുന്ന കളി എന്നാണ് പറയുന്നത് എല്ലാ കളിയും നമ്മള് ജയിക്കുമ്പം മുന്നോട്ടാണ് പോകുന്നത് എന്നാൽ വടംവലിയെ സംബദ്ധിച്ചിടത്തോളം നമ്മള് പുറകോട്ട് പോകുമ്പോഴാണ് ഈ വടംവലി മത്സരം ജയിക്കുന്നത് ആ ജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് അതിൻ്റെ തത്തുല്യമായ എന്തെങ്കിലും അതിവർക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള സമ്മാനവും ലഭിക്കുന്നതാണ് ഇത് വളരെ കായികമായി ഉള്ള കായികമായിട്ടുള്ള ഒരു ഒരു ഗെയിം തന്നെയാണിത് അതിന് നല്ലെ നല്ലെ ആരോഗ്യവും നമ്മുടെ ബോഡീ ഫിറ്റും ആയിരുന്നാൽ മാത്രമേ വടം വലിയിൽ നമുക്ക് കളിക്കാനായിട്ട് സംബന്ധിക്കാനായിട്ട് പറ്റുകയുള്ളു അല്ലായെങ്കിൽ ഒരിക്കലും ഈ ഗെയിം ജയിക്കുകയില്ല അതേപോലെതന്നെ എതിർ ടീമിലും ഇതേ ശാരീരിക ക്ഷമത ഉള്ളവരും നല്ല ആരോഗ്യ കിട്ടാ ദൃഢഗാത്രരും ആയിട്ടുള്ള ആളുകളാണ് ഈ വടം വലി എന്ന മത്സരത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാരണം എങ്കിൽ മാത്രമേ അവര് ജയിക്കാൻ പറ്റുകയുള്ളു ഒരു നല്ല ശക്തി ഉള്ള പന്ത്രണ്ട് പേരോ അല്ലെങ്കിൽ പതിനാറ് പേര് അങ്ങനെ ആണ് ഓരോ ഗ്രൂപ്പിൽ ഉള്ളത് അവർ ജേ അവര് വലിക്കുമ്പോൾ ജയ് പിന്നെ റിബൺ പുറകോട്ട് പോകുവാണേൽ എങ്കിൽ ആ ഗ്രൂപ്പ് ജയിക്കുന്നതായിരിക്കും ഇതാണ് എനിക്കൊന്ന് പരിചയപ്പെട്ത്താനുള്ളത് രണ്ടാമതായിട്ട് കബഡി

പിടിച്ചു നിർത്തിയാല് ആ ആള് ഔട്ടാകും ഇതാണ് കബഡിയുടെ കളി ഇതും അതുപോലെ തന്നെ ഉള്ള ഒരു ആരോഗ്യത്തെ ബലാബലം പരിശോധിക്കുന്ന ഒരു കളി തന്നെയാണ് കബഡിയും ഒരു ഓരോ ഓരോ സ്ഥലത്തേയും യുവാക്കളെ ഒന്നിപ്പിക്കുന്ന ഒരു കളി കൂടെയാണിത് ഇന്ന് ആധുനിക ലോകത്ത് അങ്ങനെ ഉള്ള കടി കളി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ യുവാക്കളെല്ലാം വഴിതെറ്റി പോകുന്നത് ഇതാവുമ്പോൾ അവരുടെ ശ്രദ്ധ ഏകീകൃതമായിട്ട് ഓരോ ഗെയിമിലും അവർക്ക് ഉറപ്പിച്ച് നിർത്താനും അതിലൂടെ അവർക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെട്ത്താനും ഒരേ മനസ്സോട്കൂടി അവരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരേ മനസ്സാണ് ഇതിലേറ്റോം പ്രധാനം ഒരേ മനസ്സോടുകൂടി അവർക്ക് ഓരോ ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും എന്ന് ലക്ഷ്യബോധവില്ലാത്ത യുവാക്കളാണ് നമ്മടെ തലമുറേലുണ്ടാക്ന്നത് അതിൻ്റെ ഒൻ കാരണങ്ങൾത്തന്നെ ഇതാണ് വായനയില്ല വായനയുടേയും കളികളുടെയും കുറവുകൾ കൊണ്ട് തന്നെയാണ് യുവാക്കൾ വഴിതെറ്റി പോകുന്നത് അങ്ങനെയാകുമ്പോൾ അവർക്ക് നിശ്ച് ബോധമില്ലാതെ പലപല കാര്യങ്ങൾ അവർ ഏർപ്പെടുന്ന ഏർപ്പെടുകയാണ് ചെയ്യുന്നത് ഈ വടംവലി കബഡി എന്നത് ഓരോ ഗ്രൂപ്പിൻ്റെ കളികളാണ് ഓരോ സമൂഹമായിട്ടവർ നിലകൊണ്ട് കൊണ്ട് അവരുടെ ഐക്യം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടെയാണ് ഈ രണ്ട് കളികളും ഇത് മാനസികമായി മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഗുണം ചെയ്യുന്ന കളികളുമാണ്